ഹലോ ആരാണ് ആ അതെ കുറേ നാളായല്ലോ സൗണ്ട് കേട്ടിട്ട് ആ ആ ആ എന്താണു വിശേഷം ആ പള്ളിപ്പരുന്നളല്ലേ ആ എത്ര ദിവസത്തെയാണ് എന്നാണ് ജനുവരി പന്ത്രണ്ട് ശരി ശരി അയ്യോ എനിക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട് എനിക്കൊന്നു വരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു

അയ്യോ നല്ല സാഹചര്യമാണ് പക്ഷേ എനിക്ക് തടസ്സമുണ്ടല്ലോ ആ ദിവസങ്ങളില് എനിക്ക് സ്കൂളിൽ പോകണം അതുമായിട്ട് അവിടെ ടെക്നിക്കല് കലോത്സവമാണ് സ്കൂളിൽവച്ചു നടക്കുന്നത് അന്നത്തെ മൂന്നു ദിവസം ഈ പറഞ്ഞ മൂന്നു ദിവസം ടെക്നിക്കൽ കലോല്സവം നടക്കുകയാണ് അപ്പോള് അവിടെ ചാർജുണ്ടാവും അതുകൊണ്ട് പോകാൻ പറ്റുമോ എന്നള്ളതു സംശയമാണ് എന്നാലും ഞാൻ ലീവ് കിട്ടുമോ എന്നു നോക്കട്ടെ ലീവ് കിട്ടുമെങ്കില് ആ ഞാൻ വീട്ടിലൊന്നു ചർച്ച ചെയ്യാം കാരണം ഞങ്ങള് കുറേ നാളായിട്ട് അങ്ങോട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഒത്തിരി നാളായില്ലേ വന്നിട്ട് ആ ആ എല്ലാവരെയും കാണാൻ പറ്റും അല്ലേ എല്ലാവരും ഇപ്പോള് ഇവിടെത്തന്നെയാണോ എല്ലാവരും ഇവിടെത്തന്നെയാണോ അതോ അതു ശരി ആ ആ ആ ഓ ആ ആ ആ പിന്നെ ബോർഡറല്ലേ അവിടെ കേരളത്തിൻ്റെ ബോർഡറല്ലേ അറ്റമല്ലേ അവിടെ എന്തെങ്കിലും കാണാനുണ്ടോ പ്രത്യേകിച്ചെന്തെങ്കിലും ആ ആ ആ ആ ആ അവിടെ താമസിക്കാനായിട്ടുള്ള റിസോട്ടൊക്കെ ഉണ്ടോ നല്ല സൗകര്യമുള്ളതൊക്കെ എന്നാല് എത്രയൊക്കെ ആവും അവിടെ ഒരു ഉദ്ദേശം ആരെങ്കിലും പരിചയക്കാരുണ്ടോ ആ ആ ആ ആ ഓ അതു വൈകിട്ടു വരെയുള്ളത് സ്റ്റേ ചെയ്യാനുള്ള സൗകര്യം കൂടെ നോക്കണേ ആ ആ അതുപോലെ ഞങ്ങള് വന്നാല് താമസിക്കണമെങ്കില് സൗകര്യം വേണമല്ലോ അതിനിപ്പോള് എന്തെയ്യും അവിടെ നിൻ്റെ വീട്ടില് സൗകര്യം ഉണ്ടാവുമോ ആ ഞാൻ വരുവാണെങ്കില് ചിലപ്പോള് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫാമിലികൂടെ ഇങ്ങോട്ടു വരണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് ചിലപ്പോള് അവരും ഉണ്ടാവും അപ്പർോള് അവർക്കും കൂടെ എങ്കില് അക്കോമഡേഷൻ ആ ആ ആ ശരി ശരി ആ ഹാ എന്നാല് അതൊക്കെ മതിയാവും എങ്കില് നമുക്കൊന്ന് കന്യാകുമാരിയില്ക്കൂടെ പോകണമെന്ന് ആഗ്രഹമുണ്ട് അതും കൂടെ പോകാം ബോട്ടിങ്ങിനാണു പ്രാധാന്യം കൊടുക്കുന്നത് പൂവാര് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് പൂവാറൊന്നു പോകണമെന്ന് ആഗ്രഹമുണ്ട് പിന്നെങ്കില് ഒരു ദിവസം കന്യാകുമാരിയൊക്കെ പോകാം ആ ആ ശരിയെന്നാല് അപ്പോള് ഞാൻ ലീവ് കിട്ടുമോ ഞാൻ നോക്കട്ടെ എങ്കിൽ ഞാൻ വിളിച്ചുപറയാം ആ ഞാന് വരാൻ ശ്രമിക്കാം എന്നാൽ ലീവ് കിട്ടുകയാണെങ്കില് ഞാൻ ഉടന്തന്നെ അറിയിക്കാം ചേട്ടനോടുകൂടെ ഒന്നു ചോദിച്ചിട്ടു പറയാം ശരി വീട്ടുകാരെ അന്വേഷണം അറിയിക്കണേ ശരിയെന്നാല് ഓക്കെ